എന്താണ് ഡാ വിളിച്ചത് ഓ ഇവിടെ ഒരുപാട് ഉണ്ട് അഗ്രഹാരം പോലെ ഉള്ള അതായത് സ്ഥലങ്ങൾ ഒക്കെ ആ ഉണ്ടല്ലൊ ആ ആ ആ എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പഴയ അങ്ങനെ ഉള്ള ഇത് വേണോ അതോ നമ്മൾ ഇപ്പോൾത്തന്നെ പുതുതായിട്ട് ഉണ്ടാക്കിയ റിസോർട്ട് പോലെ ആ ആ ആ ആ ആ അങ്ങനെ ഉള്ളൂ അല്ലേ ആ നമുക്ക് കമ്മീഷൻ എന്തേലും കിട്ടുമോ കുഴപ്പമില്ലല്ലേ എങ്ങനെ നിങ്ങൾ എത്ര പേരാണ് അപ്പം നമ്മക്ക് അത് അനുസരിച്ച് നോക്കാം എന്ന് വെച്ചിട്ടാണ് എത്ര പേരാണ് മുപ്പത് തന്നെ എല്ലാവർക്കും ഒരു സ്ഥലത്ത് താമസിക്കാനാണോ ആണോ ആ ആ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ചെയ്ത് തരാമല്ലോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇന്ന് അന്വേഷിച്ചിട്ട് പറയാം എന്തായാലും ഇവിടെ ഉണ്ട് നമ്മൾ ഇവിട കോഴിക്കോട് അതായത് നമുക്ക് ബീച്ചിൻറ്റ സൈഡ് തന്നെ നല്ലൊരു അഗ്രഹാരം പോലെ ഉള്ളൊരു റിസോർട്ട് ഉണ്ട് കുറച്ച് കാലപ്പഴക്കം ഉള്ളതും നമുക്ക് ഓട് മച്ച് കാര്യങ്ങൾ അങ്ങനെ ഉള്ളതൊക്കെ ഉള്ളൂ അതായത് ഫാൻ കാര്യങ്ങൾ ഒന്നും ഇല്ല പിന്നെ ഈ മച്ചിൻറ്റ തണുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉള്ള പിന്നെ ഈ നടുമുറ്റം അതായത് നടുക്ക് വെള്ളം പോലെ അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉള്ളൊരു അടിപൊളി സ്പോട്ടാ ആ നാലുകെട്ട് പോലെ ഉള്ള അടിപൊളി സ്പോട്ട് ആണ് അവർക്ക് പൈസേൻറ്റ കാര്യം ഒന്നും പ്രശ്നം ഇല്ലല്ലേ ആ ആ ആ ആ ഓക്കെ ക്യാഷിൻറ്റ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ അല്ലേ എത്ര ആണേലും കുഴപ്പം ഇല്ലല്ലേ അപ്പം ഫുഡ്ഡ് കാര്യങ്ങൾ ഒക്കെ എവിടെയാണ് നിങ്ങൾ തന്നെ

ട്രഡീഷണൽ ഫുഡ്ഡ് ആയിരിക്കും അല്ലേ ഓ ഓക്കെ ഓക്കെ ഞങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ആരേം കിട്ടിലെങ്കിൽ നമ്മളോട് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് അറേഞ്ച് ചെയ്ത് തരാട്ടോ ഡാ ആ ആ ആണല്ലേ ആ ഓക്കെ ഞാൻ നിന്നെ ഇന്ന് തന്നെ വിളിക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാട്ടോ ഇന്ന് ഞാൻ ഈവനിംഗ് വിളിക്കാം ആ ഓക്കെ ഡാ ആ ഓക്കെ